എൻ്റെ പേര് ലെയന ഞാൻ ഇന്നലെ നിങ്ങളു ടെ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു അതിൽ ഒരു ഐറ്റം ഒരു കേട് പാട് വന്ന പോലെയാണ് ഉള്ളത്

ഒരു കപ്പ് കേക്കാണ് പാക്കറ്റ് അയിറ്റമാണ് ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് വാങ്ങിച്ചത് അല്ല അല്ല ഡേറ്റ് തീർന്നത് അല്ല അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല പാക്കറ്റ് ഓപ്പണാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചപ്പോൾ ആണ് കാണുന്നത് അതെയോ ഡേറ്റ് ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല അതാണ് പിന്നെ അത് ഇപ്പം ഞങ്ങൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതല്ലേ ഇത് കഴിച്ചിട്ട് അവർക്ക് ഭക്ഷ്യ വിഷബാധയോ അങ്ങനെ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്കു ഒരു കംപ്ലയിൻ്റായിട്ട് നിങ്ങൾ ഷോപ്പിൻ്റെ പേരിൽ ഉണ്ടാവുമല്ലോ ആ ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് അല്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം അതിൻ്റെ പാക്കറ്റിൽ ഉണ്ടായ പേര് വേറെ ഏതോ ഒരു വേറെ ഏതോ ഒരു ബേക്കറിൻ്റെതാണ് രണ്ട് എണ്ണം പൊട്ടിച്ച് നോക്കുമ്പോൾ അത്പോലെ തന്നെയാണ് ഉള്ളത് പിന്നെ എല്ലാം നോക്കണ്ടത് ആവശ്യം ഇല്ല എന്ന് വച്ചിട്ട് അങ്ങനെത്തന്നെ വച്ചിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ട് ഒന്നും ഇല്ല പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെത്തന്നെയാണ് കണ്ടത് കുട്ടികളാണ് കഴിക്കുവാണെങ്കിൽ അപ്പാട് ശ്രദ്ധിക്കാണ്ട് കഴിക്കുക അല്ലെ ചെയ്യുക ഇപ്പം നമ്മൾ വലിയ ആളായത് കൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നു ഇതിപ്പോൾ ഇങ്ങ് എന്താണ് നമ്മൽ ചെയ്യേണ്ടത് ഇത് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട കേസ് അല്ലെ ഓക്കെ ശരി ഇപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അടുത്തത് ഞാൻ വാങ്ങിക്കുന്ന സാധനം ഇത് പോലെയാണെങ്കിലോ നിങ്ങളുടെ പാക്കറ്റ് സാധനത്തിന് എന്നും വലിയ ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ആ ഞാനും സ്ഥിരമായിട്ട് അവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്ന ആൾ തന്നെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം കാണുന്നത് അപ്പം പിന്നെ അവരെ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ നിങ്ങളടുക്കൽ നിന്നല്ലെ വാങ്ങിച്ചത് അപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് വിളിച്ചത് ഇപ്പോൾ എത്ര മണി വരെ നിങ്ങളുടെ കട ഓപ്പണായിട്ട് ഇരിക്കും ആ ശരി എന്നാൽ ഞാൻ അങ്ങനെ വരാം ഇന്നലെ വാങ്ങിച്ച സാധനമാണ് പക്ഷെ ഇപ്പം കുറച്ച് അര മണിക്കൂർ മുന്നെ ആണ് പാക്ക് പൊട്ടിച്ച് നോക്കിയത് അന്നേരത്താണ് കാണുന്നത് ഇത് അമ്പത്തി അഞ്ച് രൂപ ആയിരിക്കും ആയിരിക്കും അതിനാണ് സാധ്യത ആ ആ അത് കുഴപ്പം ഇല്ല പക്ഷേങ്കിൽ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക വേറെയാർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ എപ്പോഴും പരാതി പറയാണ്ട് നിൽക്കും എന്ന് വിചാരിക്കേണ്ട എല്ലായിടത്തും ഇപ്പം ഇങ്ങനെ ഭക്ഷ്യ വിഷബാധേനെ പറ്റിയിട്ട് എല്ലാം വാർത്തയിലെല്ലാം നിങ്ങളും കാണുന്നതല്ലെ ആ വീട് അടുത്ത് തന്നെയാണ് പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ദൂരമെ ഉള്ളു നടന്നിട്ട് വരാൻ പറ്റുന്നതെ ഉള്ളു വേറെ കപ്പ് കേക്ക് ഇനിയും ഇത് പോലെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ ശരി ശരി ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ ഒരു അര മണിക്കൂർ കൊണ്ട് ഈ സാധനവും ബില്ലും എല്ലാം എടുത്തിട്ട് വരാം എന്നാൽ ശരി